നമ്മൾ കിച്ചണിൽ പാചകം ചെയ്യുമ്പോൾ ഒരുപാട് അപകടങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് മുൻകരുതലുകളോടു കൂടി വേണം നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യാൻ ഇൻഡക്ഷൻ കുക്കറാണെങ്കിലും ഗ്യാസാണെങ്കിലും വിറക് അടുപ്പ് ആയാലും ഇതൊക്കെ നമുക്ക് അപകടങ്ങൾ ഒരുപാട് വരുന്നതാണ് ഗ്യാസ് ഉപയോഗിക്കുക ആണെങ്കിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞ സിലിണ്ടർ പൂട്ടി വെക്കണം അതുപോലെ നമ്മൾ എന്ത് സാധനം വാങ്ങുമ്പോഴും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നോക്കി വാങ്ങണം നമ്മൾ ഗ്യാസ് അടുപ്പായാലും ഇൻഡക്ഷൻ കുക്കറാണെങ്കിലും ഒക്കെ നമ്മൾ അത് അതിൻ്റെ ഹൈ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക ലോ ക്വാളിറ്റി ആയാൽ അതിൻ്റെ അപകടങ്ങൾ വേറെയുണ്ടാകും നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ അതു പോലെ ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തിളച്ചു അരി നമ്മൾ വെള്ളത്തിൽ അടുപ്പത്ത് വെച്ചാൽ ചായ പാൽ കറിയൊക്കെ നമ്മൾ തിളച്ചു പോകും അങ്ങനെ തിളച്ചു പോകുമെന്ന് നമുക്കറിയാവുന്ന സാധനങ്ങൾ വയ്ക്കുമ്പോൾ നമ്മൾ ഒന്ന് ഇടയ്ക്ക് നോക്കണം അല്ലെങ്കിൽ നമ്മൾ അവിടെ വച്ചു പോയാൽ ആ വെള്ളം ഇറങ്ങി വന്ന് അടുപ്പ് കെടും ഗ്യാസ് അങ്ങനെ ലീക്കാവുകയും ചെയ്യും അടുപ്പ് കെടുകയും ചെയ്യും നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത് അത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കും അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതു പോലെ നമ്മൾ അവിടെ വച്ച് അടുക്കളയിലാണെങ്കിൽ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ശ്രദ്ധിക്കണം അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ സിലിണ്ടർ പൂട്ടി വെക്കണം മക്കൾ ഇടക്ക് വന്ന് എങ്ങാനും ഗ്യാസ് ഓൺ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് ഒരുപാട് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതു പോലെ ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ നമ്മൾ അത് ഉപയോഗിച്ച് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് അതിൻ്റെ ഒരു അടിയിലൊരു ഫാന് വർക്ക് ചെയ്യുന്നുണ്ട് അത് ഓഫാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ആ സൗണ്ട് നിൽക്കും അപ്പോഴാണ് അതിൻ്റെ പ്ലഗ് നമ്മൾ ഓഫാക്കാൻ പറ്റൂ അങ്ങനെ കുറെ മുൻകരുതലുകൾ ഇൻഡക്ഷൻ കുക്കറിനുണ്ട് അതുപോലെ നമ്മൾ വിറകടുപ്പാണെങ്കിൽ നമ്മൾ കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തേക്ക് തീ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നായിട്ട് ഭയങ്കരായിട്ട് തീ കത്തുമ്പോൾ പുറത്തേക്ക് വരും അത് നമ്മുടെ വസ്ത്രത്തിലോ ഷാൾ മുടിയിലൊക്കെ പിടിച്ച് അത് പുറത്തേക്ക് നമ്മളെ മേലാകെ പടരാൻ സാധ്യത ഉണ്ട് അതു കൊണ്ട് നമ്മൾ അത് സൂക്ഷിച്ചു കൊണ്ട് അവിടെ ജോലി ചെയ്യണം അതുപോലെ നമ്മൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ കുക്കർ പൊട്ടിത്തെറിച്ച് കുറെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതു കൊണ്ട് നമ്മൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വാഷർ വിസിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വച്ചിട്ട് നേരെയാണോ ഓക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് പല അപകടങ്ങളും ഉണ്ടാവാൻ ചാൻസുണ്ട് അതു പോലെ നമ്മൾ കിച്ചണിൽ വെള്ളം തിളപ്പിച്ചിട്ട് വയ്ക്കുന്നുണ്ട് കുടിക്കാനുള്ള വെള്ളം അതുപോലെ ചൂടുള്ള ചായ പാൽ ഒക്കെ നമ്മൾ വയ്ക്കും അപ്പം ചെറിയ കുട്ടികളുള്ള വീടാണെങ്കിൽ നിങ്ങൾ അതൊക്കെ കുട്ടികൾക്ക് എത്താത്ത ഭാഗത്ത് വച്ചെങ്ങാനും അടച്ചു വയ്ക്കുക

പിന്നെ നമ്മൾ തിളപ്പിച്ച പലഹാരം ഒക്കെ ഉണ്ടാക്കി വച്ച എണ്ണ ഉണ്ടാകും അതൊക്കെ കുട്ടികൾ വരുന്ന ഭാഗത്ത് വയ്ക്കാതെ മാറ്റിവെക്കണം ഇങ്ങനെ കുറെ മുൻകരുതലുകളോടു കൂടി വേണം നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യാൻ ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ നല്ലതാണ്